യെസ് യോഗ ഒരു തരത്തിലുള്ള വ്യായാമം മാത്രം അല്ല അത് നമ്മുടെ ശരീരത്തിനേയും മനസ്സിനേയും ശരീരത്തിലേ ഓരോ അവയവങ്ങളെയും ഓരോ ഞരമ്പുകളെയും നാഡികളെയും ഏകോപിപ്പിച്ച് സമസ്തവും കൂടി ഒരു ശാരീരികവും മാനസികവുമായ വ്യത്യാസങ്ങളെ അതായത് ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങള് പ്രതിനിധീകരിക്കുന്ന ഒരു ഒരു ഒരു ഒന്നു തന്നെയാണ് യോഗയും യോഗ വ്യായാമം യോഗ സോറി യോഗ യോഗയിലൂടെ നമ്മുടെ മനസ്സിനെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ ടെൻഷനുകളെ എല്ലാം ഏകോപിപ്പിച്ച് ശാന്തമായി നിഷിബ്ദ്ധമായ ഒരു അന്തരീക്ഷത്തിലെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ശാരീരികമായും മാനസികമായും പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റിയ ഒന്നാണ് യോഗ അത് അത് നമ്മുടെ നമുക്കും നമ്മളുടെ നമ്മളുടെ ജീവിത ശൈലിയിലൂടെ യോഗ ചെയ്യുന്നയനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിലൂടെ നമ്മുടെ ജീവിത മാറ്റത്തിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് പോലും നമ്മളെ മനസ്സിലാക്കാനും നമ്മളോട് എങ്ങനെയാണ് നിങ്ങൾ ഈയൊരവസ്ഥയിലേക്കെത്തിയത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഈ ഈ ഈ ശാന്തമായ അന്തരീക്ഷത്തിലെ ശരീരത്തെ ഇത്ര മോഡിഫൈ ചെയ്തത് നല്ല ഒരു രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ആഹാരത്തിൻ്റെ രീതിയാണോ എന്നൊക്കെ നമ്മളെ കാണുമ്പം തന്നെ മറ്റുള്ളവർ ചോദിക്കാൻ തന്നെ പറ്റിയ ഒരു ഒന്നാണ് യോഗ ഇന്നത്തെ തലമുറയ്ക്ക് യോഗയെ ചെയ്യാനോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാനോ ഒന്നും സമയില്ലാത്ത വ്യക്തികളായിട്ടാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് യോഗ ഒരു നല്ല ഒരുതരത്തിലുള്ള വ്യായാമം മാത്രമല്ല അത് അതിൽ കൂടിയ അതിൽ അതിലും കൂടിയ ഒരു ഒരു മരുന്നായിട്ട് വേണം ഈ യോഗയെ കാണാൻ ഈ യോഗ ചെയ്താൽ ആയുസ്സ് കൂടും ആരോഗ്യം കൂടും നല്ല ഒരു ശരീരത്തിൻ്റെ കെട്ടുകൾ എല്ലാം ശാരീരികമായ കെട്ടുകളെ നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ ശരീര അവയവങ്ങൾക്ക് തന്നെ ഒരയവുണ്ടാകും നല്ല രക്തയോട്ടമുണ്ടാകും രോഗത്തിൽ നിന്നും വിടുതലുണ്ടാകും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുവാനും മനസ്സിലാക്കി യോഗ ചെയ്യുവാനും നമ്മൾ തയ്യാറാവണം അങ്ങനെ യോഗ ചെയ്യുമ്പം യോഗയിലൂടെ ഒത്തിരി ഒത്തിരി ശാരീരിക അസ്വസ്ഥതകൾ മാറി മാറുവാനും ശരീരത്തിന് സുഖമായ ഒരു ജീവിതാന്തരീക്ഷം പടുത്തുയർത്തുനും യോഗ നമ്മളെ വളരെയധികം സഹായിക്കും അത്കൊണ്ട് യോഗ ഒര് ഒരുതരത്തിൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ഒരു മരുന്നായിട്ട് വേണം യോഗയെ കാണാൻ യോഗ അത്ര നല്ല ഒരു ഒരു വ്യായാമ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു മരുന്നായിട്ട് ഒരു ഒരു ഔഷധമായിട്ട് നമ്മളതിനെ എന്നും കൈകാര്യം ചെയ്യുവാണെങ്കിൽ യോഗയിലൂടെ നമുക്ക് ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറുവാനും മാറ്റിയെടുക്കുവാനും ജീവിത ജീവിതത്തിൽ നല്ല ജീവിത ശൈലികൾ പടുത്തുയർത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കും അത് നല്ല ഒരു മാറ്റത്തിനും നല്ലൊരു ജീവിതം നയിക്കുവാനും നമുക്കത് വളരെ പ്രയോജനപ്പെടും അതുകൊണ്ട് തന്നെ യോഗ യോഗ ഒരുതരത്തില് ഉള്ള വ്യായാമം മാത്രമല്ല അത് ശരീരത്തിനും മനസ്സിനും മനസ്സിനും കുളിർമയും സന്തോഷവും സമാധാനം പകർന്നു തരുന്ന ഒന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മൾ യത്നിച്ച് യോഗയിലൂടെ ജീവിതം പടുത്തുയർത്തുവാനും നമ്മൾ അത്യധികം പ്രയത്നിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ആണ് ആണെന്ന് നമ്മൾ തന്നെ സ്വയം നമ്മളെത്തന്നെ വിലയിരുത്തി മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിച്ച് നല്ലയൊരു ജീവിത രീതിയിലൂടെ യോഗയെ കൊണ്ടുവന്ന് അതിനെ അസാധ്യകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നുള്ളത് തന്നെയാണ് യോഗയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയ നേട്ടം